നമ്മുടെ സമൂഹത്തിൽ നൃത്തത്തിനു വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം ഉത്സവങ്ങളുമായിട്ടു ബന്ധപ്പെട്ട് പള്ളി തിരുനാളുമായി ബന്ധപ്പെട്ട് ഒക്കെ നമുക്ക് ഒത്തിരി പിന്നെ പരിപാടികൾ അതിൻറ്റകത്തു കൂടുതലായിട്ടും നല്ല നൃത്തപരിപാടികളൊക്കെ അറേഞ്ച് ചെയ്യാറുണ്ട് നമ്മുടെ ക്രിസ്ത്യാനി ക്രിസ്ത്യാനികളെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ പള്ളിയുടെ പരിപാടികൾക്കൊക്കെ വരുമ്പോഴത്തേക്കും മാർഗ്ഗം കളി അങ്ങനെയൊക്കെ ഉള്ള നൃത്ത പരിപാടികൾ നല്ല രീതിയിലേക്കു നടത്താറുണ്ട് കാരണം ഏറ്റവും പ്രധാനമായിട്ടും മാർഗ്ഗം കളിയാണ് അതുപോലെയുള്ള ഒത്തിരി മാർത്തോമാ നസ്രാണി സംഘം അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ വെക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അതിരൂപത സഭയുമായിട്ടു ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ ഇതിനെല്ലാം നല്ല നൃത്ത പരിപാടികൾ മാർഗ്ഗം കളി അതുപോലെയുള്ള പരിപാടികളൊക്കെ നടത്താറുണ്ട് ഇത് എല്ലാവർക്കും ഇഷ്ടമാണ് കാരണം വളരെ നാളുകൾക്കു മുൻപ് പ്രചാരത്തിലിരുന്നതാണീ മാർഗ്ഗം കളിയൊക്കെ പിന്നെ ഇപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിലും പണ്ടുള്ള നമ്മുടെ എല്ലാ പരിപാടികൾക്കും ഈ ഇങ്ങനെയുള്ള നൃത്ത പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് കുട്ടികൾക്കൊന്നു മനസ്സിലാക്കിയെടുക്കാനും ഒക്കെ തീർച്ചയായിട്ടിതുപകരിക്കും ഇങ്ങനെയൊക്കെയുള്ള കലാരൂപങ്ങളിലൂടെ പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾ കുട്ടികൾക്കു മനസ്സിലാക്കി എടുക്കാം പുതിയ തലമുറയ്ക്കതൊരു പ്രചോദനമായിട്ടു പോകാൻ പഴയ ഡ്രസ്സുകൾ അതൊക്കെ ഉപയോഗിച്ചു കൊണ്ട് ആ നൃത്തപരിപാടികൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും അതു നമ്മുടെ പിന്നെ എല്ലാത്തരം പരിപാടികൾക്കും ഒരു ഉണർവ്വേകുന്നൊരു പരിപാടിയാണ് അപ്പം അതുപോലെ തന്നെ ഉത്സവങ്ങളിലൊക്കെ ആണെങ്കിൽ മോഹിനിയാട്ടം ഭരതനാട്യം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉത്സവമായിട്ടു ബന്ധപ്പെട്ട ഒത്തിരി നൃത്ത പരിപാടികൾ നടത്താറുണ്ട് അതു വൈകി പിന്നെ രാത്രി തുടങ്ങിക്കഴിഞ്ഞാൽ വെളുപ്പിനു വരെ ഉള്ള ഒന്നു രണ്ടു ഡാൻസ് പ്രോഗ്രാമുകളായിട്ട് തീർച്ചയായിട്ടും നടത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ അമ്പലങ്ങളുടെ എല്ലാ അമ്പലങ്ങളുമായിട്ടു ബന്ധപ്പെട്ട എല്ലാ ഉത്സവങ്ങളിലും ഇതുപോലെയുള്ള നൃത്ത പരിപാടികൾ പ്രധാനപ്പെട്ട ആളുകളെ കൊണ്ടു വന്ന് പ്രധാനപ്പെട്ട നർത്തകരെയൊക്കെ സിനിമയിലും അതുപോലെ തന്നെ മറ്റു നൃത്തങ്ങളൊക്കെ നടത്തുന്ന ആളുകളെ തന്നെ കൊണ്ടു വന്ന് ഒത്തിരി പരിപാടികളിതുപോലെ നടത്താറുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് കാരണം ഒരിക്കലതു കണ്ടു കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ് കഥകളി കഥകളി പണ്ടു മുതലേ ഉണ്ടായിരുന്നൊരു കാര്യമാണ് ഇപ്പം കഥകളിക്ക് പ്രാധാന്യം കുറഞ്ഞു വരുന്നുണ്ടോയെന്ന് ഒരു സംശയമുണ്ട് പക്ഷേ ഇപ്പോഴത്തെ വിദേശങ്ങളിലുള്ള ആളുകൾ വേണേ നമ്മുടെ അമ്പലങ്ങളിലൊക്കെ വന്നു കഥകളിയും കാണാറുണ്ട് അവർ തന്നെ അതു പ്രാക്ടീസ് ചെയ്യാറുണ്ട് അതു പഠിച്ചിട്ട് അവർ തന്നെ അതു നടത്തുമ്പോഴത്തേക്ക് അവർക്കൊക്കെ വളരെ ഇഷ്ടകരമായിട്ട് ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ കൊച്ചു കുട്ടികളൊന്നും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇതിനൊന്നും കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ പോകുന്നുണ്ട് കാരണം എന്താണെന്നു ചോദിച്ചു കഴിഞ്ഞാൽ മറ്റു ടി വി പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഇൻസ്റ്റാഗ്രാമായി യൂട്യൂബായി ഇതിനൊക്കെ കൂടുതലവർ പ്രാധാന്യം കൊടുത്തു കൊണ്ട് പോകും അപ്പം നമ്മുടെ താനതായിട്ടുള്ള കലാ രൂപങ്ങൾ നൃത്തങ്ങളൊ നൃത്തമൊക്കെ പലപ്പോഴും പുറകോട്ടു പോകുന്നൊരവസ്ഥ നമുക്ക് കാണാനായിട്ടു സാധിക്കും അതിനൊക്കെ ഉള്ളൊരു പോം വഴിയാണീ പറയുന്ന രീതിയിലേക്കുള്ള നമ്മുടെ തിരുനാളുകളും ഉത്സവങ്ങളുമൊക്കെ അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള പരിപാടികളൊക്കെ നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും കാണുകയും കേൾക്കുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമുക്കത് നമുക്ക് മനസ്സിനു വളരെ സന്തോഷം തരുന്നൊരവസ്ഥയാണ് അപ്പം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ചും നൃത്തം മറ്റുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ തട്ടിച്ചു നോക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യം ഏറ്റവും ആളുകൾക്ക് വളരെയധികം രസം തോന്നുന്നൊരു പരിപാടിയെന്നു പറയുന്നത് ഇതുപോലെയുള്ള നൃത്തം പരിപാടികളാണ് അതു നമ്മുടെ പള്ളികളിലൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ടും മാർഗ്ഗം കളി അതുപോലെയുള്ള അതിപുരാതനമായിട്ടുള്ള നൃത്തരൂപങ്ങളും അമ്പലങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ ഈ പറയുന്ന രീതിയിലേക്കുള്ള ഭാരതനാട്യം അങ്ങനെയൊക്കെയുള്ള ഉത്സ പരിപാടികളൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും നടത്തുന്നത്